പാചകം ഒരു വ്യവസായമാക്കി മാറ്റണമോ എന്നു ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ പാചകം ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ ചില ഹൈലി ഉള്ള ഐറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പായി പോകുന്നുണ്ടെങ്കിലും നല്ല അല്ലാതെയുള്ള രീതിയിൽ നമ്മളുടെ കാപ്പിയായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇഡലി സാമ്പാറ് ചമ്മന്തി വട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനും അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ആ വരുന്നവർക്കും നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിനൊക്കെ നമ്മളത് കൊണ്ടുവന്നു ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അഭിപ്രായങ്ങളും അവ തന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കിതൊക്കെ ഒരു വരുമാനമാർഗമാക്കി ചെറിയ രീതിയിലൊക്കെ വരുമാനമാർഗം കിട്ടത്തക്ക രീതിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് വെക്കുന്നൊരു സാഹചര്യത്തിൽ എത്തിക്കൂടെ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടാതെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം പറയുകയാണെങ്കിൽ അവർക്കും നല്ല നല്ല താല്പര്യം തന്നെയാണ് അതായത് ചെറിയ രീതിയിൽ ഒരു ക്യാറ്ററിംഗ് പോലെയൊക്കെ തുടങ്ങി അത്യാവശ്യം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേർക്കൊക്കെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുക അതിൽ നിന്നൊരു ചെറിയൊരു വരുമാനം നേടുക എന്നൊക്കെയുള്ളത് എൻ്റെ വീട്ടുകാരുടെ പ്രതികരണം നല്ല രീതിയിൽ തന്നെയാണ് അവരും ശക്തമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് അതിനകത്ത് നിന്നുമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ അങ്ങനെ ആദ്യം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങി തുടങ്ങിക്കൊണ്ട് പിന്നീട് അതിനെ ഒരു ബൃഹത്ത് ശൃംഖലയാക്കി മാറ്റണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹം അതങ്ങനെ ആണ്